ഞാൻ ആമസോണിൽ നിന്ന് ഒരു മാട്രസ് ഓഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓണ്ലൈന് വഴി പര്ച്ചേസ് ചെയ്യുമ്പോൾ നല്ല അയിട്ടം ആവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് ഐറ്റം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാന് വിചാരിച്ചതിലും നല്ല പ്രൊഡക്റ്റായിരുന്നു കേട്ടോ അത് അതിൽ എമൗണ്ട് നമുക്ക് അഫോഡബിള് ആയിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയുള്ള ബെഡ് ആയിരുന്നു നമുക്ക് കിടക്കാനാണെങ്കിലും നല്ല സോഫ്റ്റും ഭയങ്കര ഹാഡ് ഒന്നുമല്ലായിരുന്നു നല്ല സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അവർ പിന്നെ അതുപോലെ തന്നെ അവർ കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് ഡെലിവറിയും ചെയ്തു തന്നു നല്ല ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്